വീട്ടിൽ കുടുംബക്കാരൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേന് നല്ല സഹകരണം ആയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഇപ്പോൾ കൂട്ടുകാരെല്ലാം വരുമ്പോൾ പാചകം ചെയ്യാനായാലും സംസാരിക്കാൻ വേണ്ടി തന്നെയും കൂടുതലും കുക്കിംഗിനകത്തോട്ട് പോവുമ്പോഴത്തേനും ഭയങ്കര നല്ല രസമാണ് കുക്ക് ചെയ്യാനും പാചകം ചെയ്യാനും ഒക്കെ ആ കൂട്ടുകാരും ആയിട്ട് കുടുംബക്കാരും എല്ലാവരും ആയിട്ട് സംസാരിക്കാനും അവരും ആയിട്ട് അടിച്ച് പൊളി അടിച്ച് പൊളിച്ച് നിൽക്കാനും പിന്നെ പാചകം ചെയ്യാനും ഒക്കെ നല്ല രസമാണ് ഞങ്ങൾ കൂടുതലും ഇന്ന് ചില വീട്ടിൽ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളൊക്കെ വരുന്നതിന് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ വയ്ക്കാനും കൂടുതൽ അതിനകത്തോട്ട് ഫുഡ് ആഹാരത്തിനകത്തോട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വെറൈറ്റികൾ പറയും അപ്പം ആ വെറൈറ്റികൾ അനുസരിച്ച് ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കും പിന്നെ നല്ല രസമല്ലേ എല്ലാവരും ആയിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ കുടുംബക്കാർ എല്ലാവരും കൂടി വരുമ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കാനായാലും എല്ലാവരും അപ്പോഴത്തേനും ഓരോരുത്തർ വന്നിട്ട് പറയും എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലും നല്ല രസമാണ് അപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പം ഓരോരുത്തർ ഓരോ വെറൈറ്റികൾ പറയുമ്പത്തേക്കും ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്ത് കൊടുക്കാനും പിടിക്കാനും ഒക്കെ നല്ല രസമാണ് അപ്പം പിന്നെ കാര്യായിട്ടൊക്കെ അടിച്ച് പൊളിക്കാനും ഒക്കെ ഭയങ്കര രസമാണ് കുക്ക് ചെയ്തു ഇങ്ങനെ അടിച്ച് പൊളിക്കാനൊക്കെ നല്ല രസമാണ്